വയനാട് ജില്ലയില്ലെ താപനിലയിപ്പം മഴയാണ് മഴ സീസൺ ആണ് വേനൽ വെള്ളപൊക്കം അങ്ങനത്തെ ഒന്നും അനുഭവങ്ങൾ പെട്ടിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനത്തെ വലിയ പ്രേത്യേകിച്ച് അനുഭവങ്ങൾ ഒന്നുമില്ല ഇല്ലില്ല അങ്ങനത്തെ ഒന്നുമില്ല ആ പിന്നെയെനിക്ക് എൻ്റെ ഒരു ഓർമയിൽ ഏതോ രണ്ടൂമൂന്നാല് വർഷം മുൻപാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപതോ പതിനെട്ടോ ആ സമയത്തെങ്ങാനും അതൊരു തണുപ്പ് കൂടീട്ട് ഇവിടെ പത്ത് ഡിഗ്രി സെൽഷ്യസൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ അപ്പം ഭയങ്കര മഴയായൊക്കെ പെയ്തൊരു കാലം ചുരത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര കോട ഭയങ്കര തണുപ്പ് ഒക്കെയുളള എനിക്കൊരു ഓർമ പോലെ പിന്നെ ചൂടുണ്ട് ചൂട് നല്ല കൂടുതൽ ഉണ്ട് ഉണ്ട് നല്ല പോലെ ഉണ്ടാവലുണ്ട് എല്ലാ വേനൽക്കാലത്തും ഭയങ്കര ചൂടാണ് ഇപ്പം ചൂടായിട്ട് തന്നെ കണ്ടില്ലെ മഴയൊന്നും പെയ്യുന്നില്ല കർണാടകയിലത്തെ കാലാവസ്ഥ പോലെ